എൻ്റെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉള്ളത് ബി എസ് എൻ എല്ലിൻ്റെ ആണ് വളരെ സ്പീഡ് കുറവാണ് ആ ആദ്യം എടുത്ത സമയത്തൊക്കെ നല്ല രീതിയിൽ സ്പീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറവാണ് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സ്പീഡ് കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം എനിക്ക് ചെയ്ത് തരണം കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കൊച്ചുങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നു അവരുടെ പഠിക്കുന്ന അവരുടെ പ്രൊജക്റ്റ് ഒക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വൈഫൈ അത്യാവശ്യമാണ് വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നെറ്റ് വഴി അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് അതിനുള്ള സംവിധാനം നിങ്ങൾ എത്രയും പെട്ടെന്ന് തരണം ഞാൻ പിന്നെ ഇനി ഒരു ഇത് ഞാൻ ഒരു രണ്ടു മൂന്നു പ്രാവശ്യം നിങ്ങളെ വിളിച്ചായിരുന്നു എനിക്ക് വൈഫൈക്ക് സ്പീഡ് കുറവാണെന്നും പറഞ്ഞ് അപ്പോൾ നിങ്ങള് അത് എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് അതൊന്ന് ചെയ്ത് തരണം കേട്ടോ കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗം കൂടിയാണിത് എനിക്ക് അവരെ വിദ്യാഭ്യാസത്തെ നോക്കണം അത് കാരണം അവരെ പല മേഖലകളിലേക്കും അവർക്ക് പോകണ്ടതാണ് അപ്പം എത്രയും പെട്ടെന്ന് എനിക്കത് ശരിയാക്കിത്തരാൻ ആയിട്ടുള്ള സംവിധാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം